നമ്മുടെ വിദ്യാഭ്യാസ രീതി എന്ന് പറഞ്ഞാൽ നമ്മുടെ മാതാപിതാക്കൾ ഒരുപാട് പഠിച്ചവരൊന്നും അല്ല അന്നത്തെ ഏറ്റവും വലിയ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു സെവൻത്ത് ഏഴാം ക്ലാസ് നാലാം ക്ലാസ് വിദ്യാഭ്യാസം ഒക്കെയാണ് അപ്പോൾ അതിലെന്നു പറഞ്ഞാൽ അവരുടെ സാഹചര്യമാണ് അവരെ പഠിക്കാൻ അനുവദിക്കാതെ വന്നത് കുറേ മക്കളുണ്ടാവും അവർക്കെല്ലാം തന്നെ ഭക്ഷണവും കാര്യങ്ങളും പിന്നെ മൂത്ത പിള്ളേരാവുമ്പോൾ അവരുടെ കാര്യങ്ങൾ അങ്ങനെ എന്താ പറയുക ഒരുപാട് സിറ്റുവേഷൻ വളരെ വളരെ മോശമായിരുന്നു പിന്നെ ഇന്നത്തെ അത്ര വിദ്യാഭ്യാസ സൗകര്യങ്ങളോ വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യങ്ങളോ പറഞ്ഞു കൊടുക്കാൻ ആളില്ലാത്തൊരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു പിന്നെ അവരെയൊന്നും ആരും പഴയ തലമുറയെ കൈ പിടിച്ചുയർത്താൻ പാകത്തിന് അറിവുള്ളവർ അവരുടെ വഴിക്ക് പോകും ഇല്ലാത്തവൻ അതിൻ്റെ വഴിക്ക് പോകും ആ ഒരു അവസ്ഥയായിരുന്നു പിന്നെ പണ്ടൊക്കെ എഞ്ചിനിയറിംഗിനായാലും എം ബി ബി എസിനായാലും ഒക്കെ അവര് അധ്വാനിച്ചു പഠിച്ച ആൾക്കാർ ആയിരുന്നു പക്ഷേ ഇന്നത്തെ മക്കൾക്കെന്നു പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒരുപാട് വ്യത്യാസമാണ് ഇന്നെല്ലാം പാരെൻ്റ്സ് നേടികൊടുക്കുന്നു മക്കൾ അതൊന്നു വിഴുങ്ങി കിട്ടുക എന്നൊരു അവസ്ഥയിലേക്കു മാറിയിട്ടുണ്ട് പക്ഷേ അതിനനുസരിച്ചു പണ്ടത്തെ ഐ ക്യു ലെവൽ അല്ല ഇന്ന് ഇന്നതിലൊരുപാട് വ്യത്യാസം വന്നു ആർക്കും എന്താ പറയുക സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി വളരെ കുറവാണ് പക്ഷേ പണ്ടത്തെ മനുഷ്യരുടെ ആ ഒരു പവർ ഇന്നത്തെ വിദ്യാഭ്യാസത്തിന് ഇല്ല സ്ഥിതി പണ്ടത്തെ സ്ഥിതീനെക്കാളും എത്രയോ ഉയർച്ചയിലാണ് ഇന്ന് നമ്മൾ